നമ്മുടെ സെലിബ്രിറ്റി ഒരാൾ സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ ഒരാൾ അവരെ കുറിച്ച് എന്തൊക്കെ പറയാം നമ്മുടെ സോഷ്യൽ മീഡിയ ആയാലും ഏത് രീതിയിലായാലും നമ്മളല്ലാതെ ആയാലും അവരെ തേജോവധം ചെയ്യാൻ ഒത്തിരി ആഗ്രഹിക്കപ്പെടും കാരണോന്ന്വെച്ചാൽ അവരുടെ വളർച്ച നമ്മളിഷ്ടപ്പെടുന്നില്ല അതാണ് ഒന്നാമത്തെ കാര്യം അവരെ എങ്ങനെ നമുക്ക് താഴ്ത്തിക്കെട്ടാം അതാണ് ഏറ്റവും വലിയ ഇത് അവരുടെ സ്വകാര്യതകളിൽ നമ്മൾ കയറി അവരെ തേജോവധം ചെയ്ത് അവരുടെ കഴിവുകളെ ഇല്ലാത്താക്കാനൊക്കെ നമുക്ക് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ദിലീപിൻ്റെ പ്രശ്നം തന്നെ അതുപോലെ ദിലീപിനെയൊക്കെ ശരിക്ക് ഒത്തിരി തേജോവധം ചെയ്യുന്നു അവരുടെ ഒരു അവരുടെ സ്വകാര്യതകളിൽ അവർക്കൊരു സ്വകാര്യതകളില്ലാതെ അവരെ തുറന്ന് കാണിച്ച് മീഡിയകൾ വഴി അവരെ മറ്റുള്ളവരിലേക്ക് മീഡിയ വഴി കാണിച്ച് അവർ അവരുടെ അവരുടെ ജീവിതത്തിൽ എത്രത്തോളം തകർക്കപ്പെടാമോ തകർക്കമോ അതിന് വേണ്ടി ഓരോ കാര്യങ്ങൾ നമ്മുടെ ഓരോ മീഡിയകളും എല്ലാവരും ചെയ്തു കൊണ്ടിരിക്കും കാരണം അതുവഴി അവരെ തകർക്കുക എന്നുള്ളതാണ് അതിൻറ്റെ ഒന്നാമത്തെ കാര്യം അവരെ ഒരു രീതിയിലും വളർന്ന് വരുവാനോ വളർത്താനോ ആരും സഹായിക്കാറ് ആരും ഒരുപാട് സെലിബ്രിറ്റി ആയിക്കഴിഞ്ഞാൽ അവരെ കുറിച്ച് ആർക്കുമൊരു നല്ല കാര്യങ്ങൾ പറയത്തില്ല കാരണന്ന്വെച്ചാൽ അവർ വളർന്ന് വരുന്ന ഒരു ഇത് തലമുറയാവുമ്പം അവരെ എങ്ങനെ തേജോവധം ചെയ്യാം അവരെവിടെ അടിച്ച് താക്കാം എന്നുള്ളതിനെ കുറിച്ചായിരിക്കും എല്ലാവരും ചിന്തിക്കുക അതുപോലെ അവരുടെ വികസനം ഒരിക്കലും ഒരാൾ വികസനം ഒരാൾ വളർന്ന് വരുന്ന അവരുടെ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിൽ എന്തെങ്കിലൊരു പിഴവുകൾ സംഭവിച്ചാൽ പോലും ഒരു സെ സെലിബ്രിറ്റിയോ ആരെങ്കിലും ഒരു വളർന്നു വരുന്ന മനുഷ്യൻ ഒരു ചെറിയ പിഴവുകൾ വന്ന് കഴിഞ്ഞാൽ പോലും ആരും അത് ഒരിക്കലും അവരെ മറച്ച് വെക്കാതെ പുറത്ത് കാട്ടി അവരുടെ ഒത്തിരി തേജോവധം ചെയ്യാനൊക്കെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുക അതുപോലവരുടെ ജീവിതത്തെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കാതെ വരും അതുവഴി അതുവഴി അവരുടെ ജീവിതത്തിൻ്റെ ഒത്തിരി ഒത്തിരി അവരുടെ വളർച്ചയെ തടയുവാനും ഒക്കെ അത് എന്താണ് ന്നുണ്ട് വളർച്ച നട ഒക്കെ തടയുന്നുണ്ട് അവർ അതോടെ ചില ചില ആൾക്കാർ അതോടെ അവരുടെ മൈൻഡ്കൾ പോയിട്ട് അവർ വളർന്ന് വരാതിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവർ അതില്ലാതാക്കുന്നുണ്ട് ഒത്തിരി പേര് അങ്ങനെയൊക്കെ അവരെ ഒത്തിരി ഇത് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ അതുപോലെ തന്നെ അവരുടെ അവരുടെ സ്വകാര്യതകളെ ആകെ ആരും അവർക്ക് അവരുടെ മാനസിക വിഷമങ്ങളെയൊന്നും ആരും മനസിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല അവർക്ക് മറ്റുള്ളവർക്ക് എന്ത് നല്ലതെന്ന് തോന്നുന്നോ അത് ചെയ്യാൻ അവരെ മറ്റുള്ളവരെ അവരുടെ സ്വകാര്യതകളുടെ അവരെ ജീവിതത്തിൻ്റെ ഓരോ മുൻപോട്ടുള്ള വഴികളെ കുറിച്ചൊന്നും ചിന്തിക്കാതെ അവർക്ക് അവരെക്കുറിച്ച് തെറ്റുകൾ തിന്മയായത് മാത്രം ചിന്തിക്കുകയും അവരെ ആ രീതിക്ക് അവരുടെ മുൻപോട്ടുള്ള വഴികളെ കൊണ്ടുപോവുകയുമൊക്കെ ചെയ്യുന്നുണ്ട്

അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ ഉണ്ടാവുന്ന കുഞ്ഞ് പ്രശ്നങ്ങൾ പോലും വലുതാക്കി മറ്റുള്ളവരിൽ എത്തിക്കുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും അവരോരോരുത്തരും ചെയ്യുന്ന ഓരോരോ കാര്യം കാരണം അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഉയർച്ച ഉണ്ടാവാൻ ഇവർ സമ്മതിക്കത്തില്ല അതാണതിൻ്റെ അതാണ് എല്ലാ എല്ലാ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം അതാണ് മറ്റുള്ളവരെ ഒരു ജീവിത വിജയത്തിലേക്ക് എത്താനായിട്ട് ആരും സമ്മതിക്കുന്നില്ല അതായത് നമ്മളെകാട്ടിലും മുന്നിട്ട് ആരും പോകുന്നത് ആർക്കും ഇഷ്ടമല്ല എന്നുള്ള ഒരു ഇതാണ് ഏറ്റവും വലിയ അവരെ തളർത്തുക എന്നുള്ളൊരു മൈൻഡ് വെച്ച് അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് വരുന്ന ഓരോരോ കുഞ്ഞ് പാളിച്ചകളിൽ പോലും വലുതാക്കിയെടുത്ത് തീർക്കുന്നു അതാണവരുടെ ഏറ്റവും

അവരുടെ ജീവിതത്തിൻ്റെ അവർക്കുണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങൾ പോലും കൊച്ച് കുഞ്ഞ് പ്രശ്നങ്ങൾ പോലും വലുതാക്കി മറ്റുള്ളവരെ കാണിച്ച് അവരെ മാനസികമായിട്ട് തകർത്ത് അവരുടെ ജീവിതത്തിൻ്റെ നല്ല നല്ല കാൽചുവടുകളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ലക്ഷ്യം അത് സെ അത് സെലിബ്രിറ്റികളായി എല്ലാവരും അറിയപ്പെടോ അവർ രക്ഷപ്പെടൂന്ന് കാണുമ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് അതൊക്കെ അതൊക്കെ ചെയ്യാതെ അത് ചെയ്യാന്നുള്ളത് അവരെ നശിപ്പിക്കാന്നുള്ള ഒരൊറ്റ ലക്ഷ്യം കൊണ്ട് മാത്രമാണ് അല്ലാതെ അവരുടെ അവരോടുള്ള സ്നേഹം കൊണ്ടോ അവർ ഉള്ള ദയ കൊണ്ടോ ഒന്നുമല്ല അവരെ എങ്ങനെ നശിപ്പിക്കാമെന്നുള്ളത് മാത്രമാണ് അവർ ചിന്തിക്കുന്നത് അതിൻ്റെ ഒരു ഇതായിട്ടാണ് അവരോട് ഇങ്ങനൊക്കെ കാണിച്ച് കൂട്ടുന്നത് അതാണ് എൻ്റെ ഒന്നാമത്തെ കാര്യം